നമ്മുടെ ജീവിതത്തില് പൊതുവിജ്ഞാനവും ബൗധികചിന്തയും വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് പത്രങ്ങൾക്കും വാർത്താമാദ്ധ്യമങ്ങൾക്കും സാധിക്കുകയെന്ന് ചോദിച്ചാല് ഈ പത്രങ്ങളിലൂടെയും വാർത്താമാദ്ധ്യമങ്ങളിലൂടെയും അല്ലെങ്കില് സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളുപയോഗിക്കുന്ന മറ്റ് ആർട്ടിഫിഷ്യല് ഇൻ്റലിജൻസിലൂടെയുമൊക്കെയാണ് നമുക്ക് നമ്മുടെ പൊതുവിജ്ഞാനവും ബൗതികചിന്തയുമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുക അതായത് ഇപ്പോള് നമ്മള് നമ്മളായിരിക്കുന്ന ചുറ്റുപാടില് കണ്ടുമുട്ടുന്ന വ്യക്തികളില് ഇടപെടുന്ന ആളുകളില് നിന്നൊക്കെ ലഭിക്കുന്ന വിജ്ഞാനത്തെക്കാളും ലോകമെമ്പാടുമുള്ള ആളുകളില് നിന്ന് അവരുടെ അറിവും കഴിവും പൊതുവിജ്ഞാനവും എന്താണ് നോളഡ്ജും അതൊക്കെ സ്വാംശീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഈ മാദ്ധ്യമത്തിലൂടെയാണ് പിന്നെ ഇത് വളരെയധികം ലാഭകരമാണെന്നുതന്നെ പറയാനായിട്ട് പറ്റും കാരണം ഇങ്ങനെയുള്ള മാദ്ധ്യമങ്ങള് അല്ലെങ്കില് വാർത്താമാദ്ധ്യമങ്ങള് പത്രങ്ങള് സോഷ്യൽ മീഡിയ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മൂലം നമുക്കെന്താണ് പൈസമുടക്കില്ലാതെ നമുക്ക് ഒത്തിരിപ്പേരുടെ നോളജ് അക്വയര് ചെയ്യാനായിട്ട് നമ്മുടെ അറിവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെയ്ക്കാനായിട്ട് അവരുടെ അറിവിനെ നമ്മുടെ അറിവിനോട് യോജിപ്പിച്ച് നല്ല നല്ല കാഴ്ചപ്പാടുകള് രൂപീകരിക്കാനായിട്ട് നല്ല നല്ല ബോധ്യങ്ങളിലേക്ക് അറിവുകളിലേക്ക് എത്തിച്ചേരാനായിട്ടുമൊക്കെ ഇതുവഴി സാധിക്കുന്നുണ്ട് പിന്നെ ആനുകാലിക സംഭവങ്ങള് അതായത് ആനുകാലികമായിട്ടുണ്ടാകുന്ന സംഭവങ്ങള് അറിഞ്ഞിരിക്കുക വഴി എന്ത് നേട്ടമാണ് പ്രതീക്ഷിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മള് കണ്ടുമുട്ടുന്ന വ്യക്തികള് അല്ലെങ്കില് ഇടപെടുന്ന സാഹചര്യങ്ങള് നമ്മള് ജീവിക്കുന്ന ചുറ്റുപാടുകള് എന്ത് എങ്ങനെ എപ്രകാരം മുന്നോട്ടുപോകുന്നുവെന്നറിയാന് ഇല്ലെങ്കില് ഞാനെന്ത് മാറ്റമാണ് വരുത്തണ്ടേത് ഞാൻ ജീവിക്കുന്ന സമൂഹത്തില് ഞാനെങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കില് അതിനെപ്പറ്റി അറിവ് നേടാനായിട്ട് ഇങ്ങനെയുള്ള വാർത്താമാദ്ധ്യമങ്ങള്ക്കും പത്രങ്ങൾക്കുമൊക്കെയെ കഴിയുകയുള്ളൂ ഇതിൻ്റെ ഉപയോഗം മൂലമേ ഇതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽത്തന്നെ ഞാന് പറയും വാർത്താമാദ്ധ്യമങ്ങളും പത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇപ്പോളെന്ത് കാര്യമെടുത്താലും നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി അറിയണം സോഷ്യൽ മീഡിയയിലൊന്ന് സേർച്ച് ചെയ്താല് മതി അല്ലെങ്കില് ഗൂഗിളിലൊന്ന് സേർച്ച് ചെയ്യുക യൂറ്റ്യൂബിലൊരു വീഡിയോ കാണുക നമുക്കറിവില്ലാത്തൊരു കാര്യത്തിനെ നമ്മളെ അറിവുള്ളവരാക്കി മാറ്റാൻ തക്കവിധത്തില് ഈ നവമാദ്ധ്യമങ്ങള് ഇന്നത്തെ ലോകത്തില് ഒത്തിരിയേറെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് അതുവഴിയായിട്ട് ഇന്നത്തെ ഇപ്പം പണ്ടത്തെ ആളുകളാണെങ്കിലെന്താണ് ഒത്തിരിയേറെ പുസ്തകങ്ങള് വായിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ടൈം കണ്ടെത്തിയിരുന്നത് ഇപ്പം ഞാനങ്ങനെയല്ലെന്നല്ല ഞാൻ പറയുന്നത് പുസ്തകങ്ങള് വായിക്കുക അതുവഴി നോളജ് അക്വയര് ചെയ്യുക അതിനെക്കാളുപരി ഇന്ന് നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങി നില്ക്കുന്ന അല്ലെങ്കിലൊന്ന് സേര്ച്ച് ചെയ്താല് ലഭ്യമാകുന്ന ഒരു ഒരു എന്താണ് പറയുക ദശലക്ഷക്കണക്കിനറിവുകളാണ് ഇന്നീ സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാദ്ധ്യമങ്ങളിലൂടെയും വാർത്താമാദ്ധ്യമങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുക അപ്പം നമ്മളെന്താണ് ലൈബ്രറിയില് പോയൊരു പുസ്തകമെടുത്ത് ആഴ്ചകളിരുന്നത് വായിച്ച് നോളജ് അക്വയര് ചെയ്യാൻ ശ്രമിക്കുന്നതിനെക്കാള് വേഗത്തില് യൂസ്ഫുള് ആയിട്ട് പെട്ടെന്നുതന്നെ നമുക്ക് നോളേജ് അക്വയര് ചെയ്യാന് പറ്റുന്നൊരു ഐഡ്യ നമ്മള് എപ്പോഴും ചൂസ് ചെയ്യും അങ്ങനെ ചൂസ് ചെയ്യുന്നൊരു ഐഡ്യ ആയിട്ട് വേണം നമുക്ക് ഈ വാർത്താമാദ്ധ്യമങ്ങളെയും പത്രമാദ്ധ്യമങ്ങളെയുമൊക്കെ കാണാനായിട്ട് അതുപോലെത്തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും